ആ ഒരു ഓൾഡേജ് ഹോമിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടിയിട്ട് ഒരു സിനിമ നല്ല ഒരു സിനിമയാണ് ഞങ്ങൾ പോയി കണ്ടു സ്വർഗ്ഗമെന്നാണ് സിനിമയുടെ പേര് അപ്പം ആ സിനിമ നിങ്ങളും പോയി കാണണം അത് പോയി കാണുന്നതിലൂടെ നമുക്ക് ഓൾഡേജ് ഹോമിനെ സഹായിക്കുന്നതിനും നമ്മൾക്ക് മാനസികമായിട്ടും ഒരു ഉല്ലാസം ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് അപ്പം അതുകൊണ്ട് ആ സിനിമ പോയി കണ്ടു ആ ട്രസ്റ്റിനെയൊന്ന് സഹായിക്കാനായിട്ട് എല്ലാവരും പ്രയോജനപ്പെടുത്തണം ഈ സാഹചര്യം